ശരിക്കും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും മീൻസ് ചില വിദ്യാർത്ഥികളും ഉന്നത വിദ്യാഭ്യാസത്തിന് പോവുകയും ചില വിദ്യാർത്ഥികൽ കുടുംബ ബിസിനസ്സിലേക്ക് മാറുകയും ചില വിദ്യാർത്ഥികൾ അവരുടെ പ്രദേശത്ത് ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ടായിട്ട് ഞാൻ കാണുന്നുണ്ട് കാരണം എന്ന് വച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പാടാണ് ഇപ്പം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇടത്ത് നിന്ന് ചെന്നു കഴിഞ്ഞാൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഇപ്പം നൂറ് ശതമാനത്തിൽ അറുപത് ശതമാനത്തിലേറെ പേരും ഉന്നത വിദ്യാഭ്യാസം എന്ന പോകുന്നവർ തന്നെയാണ് ഇപ്പം നമ്മുടെ പ്രദേശത്തുള്ളവർ പിന്നെ കുടുംബ ബിസിനസ് തുടരുന്ന ആൾക്കാർ കൂടുതലും കുടുംബപരമായിട്ട് ബിസിനസ്സുള്ളത് ഇപ്പം നല്ല സാമ്പത്തികമായിട്ട് നല്ല മെച്ചപ്പെട്ടു നിൽക്കുന്ന ആൾക്കാർ മാത്രം കുടുംബ ബിസിനസ്സിലേക്ക് തിരിയുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ചിലർ പിന്നെ ഇപ്പം നമുക്ക് വീട്ടിലുള്ള ബുദ്ധിമുട്ട് കാരണം നമുക്ക് മുന്നോട്ട് പിടിക്കാൻ കഴിയില്ലാത്തതിന് കാരണം മാത്രം കുറച്ചു പേര് പത്ത് ഇരുപത് ശതമാനം പേര് സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയിട്ട് ജോലിക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് വീട്ടിലെ ബുദ്ധിമുട്ട് കാരണമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് കുറച്ചെങ്കിലും നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രക്ഷിതാക്കളുടെ ആ ഒരു മാനസിക ഇത് വച്ചിട്ടായാലും അവർ അവരുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാക്സിമം പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെയും ലക്ഷ്യം പക്ഷേ അവരെക്കൊണ്ടതിന് സാധിക്കാത്തതും അല്ലെങ്കിൽ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം അല്ല കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നേരിട്ട് ജോലിക്ക് പോവാൻ ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ പിന്നെ ഏറ്റവും കൂടുതൽ പേര് ഇപ്പം വിദ്യാഭ്യാസത്തിന് നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവരാണ് ചുരുക്കം കുറച്ചു പേര് മാത്രമേ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കുടുംബ ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് ജോലിക്ക് പോവുകയോ ചെയ്യുന്നുള്ളു മറ്റ് കൂടുതൽ ഒരു അറുപത് ശതമാനം ആൾക്കാർ ഏറ്റവും കൂടുതൽ ശതമാനം ആൾക്കാരും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസം ഡിഗ്രി അങ്ങനെ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ചുരുക്കം കുറച്ചു ആൾക്കാർ മാത്രം കുടുംബ ബിസിനസിലേക്ക് സ്കൂൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പോകുന്നുള്ളൂ ഏറ്റവും കൂടുതൽ ആൾക്കാരും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആ ബിസിനസ്സിലോ ജോലിക്കോ പോകുന്നവരല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസം ശ്രമിക്കുന്നവരാണ് പിന്നെ ഒരു ഡിഗ്രി കുറച്ചു ഒരു ഒരു മിഡിൽ എജ്യൂക്കേഷൻ ആയതിന് ശേഷം മാത്രമാണ് കൂടുതൽ പേരും കുടുംബ ബിസിനസ്സിലേക്ക് മാറുക പിന്നെ സാമ്പത്തികായിട്ട് വളരെ പുറകിലാണെങ്കിൽ മാത്രമാണ് കൂടുതൽ ആൾക്കാരും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നേരിട്ട് ജോലിക്ക് ശ്രമിക്കുന്നത് അത് വീട്ടിലുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും വീട്ടിലുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ വീട്ടിൽ നമ്മളെ മുന്നോട്ട് നമ്മുടെ വിദ്യാഭ്യാസം നോക്കാൻ ആളില്ലാത വരികയും ചെയ്യുന്ന സമയങ്ങളിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നൽ ഏറ്റവും കൂടുൽ ആൾക്കാർ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്നവരാണ് പിന്നെ വളരെ കുറച്ചു ആൾക്കാർ മാത്രം സ്കൂൾ വിദ്യാഭ്യാസത്തിന് സാമ്പത്തികമായിട്ട് വീട്ടിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വീട്ടിൽ മുൻഗണന കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടും അങ്ങനെയുള്ള കുറച്ചു പ്രശ്നങ്ങൾ കാരണം മാത്രം ചിലർ നേരിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ഏറ്റവും കുറച്ചു ആൾക്കാർ മാത്രമേ സ്കൂൾ വിദ്യാഭ്യാസം കുടുംബ ബിസിനസിലേക്ക് മാറുന്നുള്ളൂ ഇപ്പം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു നമ്മുടെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കൂടുതൽ ആൾക്കാരും കുടുംബ ബിസനസ്സിലേക്ക് മാറുന്നതായിട്ട് ഞാൻ കരുതുന്നുള്ളൂ